വസന്ത് വിഹാറല്ലേ ഇത് ആടെ മസാല ദോശ ഉണ്ടോ അപ്പാ ഇപ്പോൾ വൈകുന്നേരത്തേക്ക് ഉം പിന്നെ വേറെ എന്തെല്ലാം ഉണ്ടവിടെ ഒരു പത്തെണ്ണം

അല്ലല്ല പാർസൽ ആ അല്ല അത് മഞ്ഞപ്പടിക്ക്

അതെ അല്ല അപ്പോൾ ഞാൻ ആളെ അയയ്ക്കാം നിങ്ങൾക്ക് ഡെലിവറി ബുദ്ധിമുട്ട് ആണെങ്കിൽ ഞാൻ ആളെ അയയ്ക്കാം ആ ശരി അപ്പോൾ ആ ഞാൻ ആളെ അയയ്ക്കാം പിന്നെ വേറെ എന്തുണ്ട് സ്പെഷ്യൽ ആയിട്ട് ഉം പിന്നെ നെയ് റോസ്റ്റ് ആ ആ അതല്ല ആ അല്ല ഗോ ഗോപി മഞ്ചൂരിയൻ ഒരു രണ്ടെണ്ണം പാർസൽ ഇരിക്കട്ടെ ആ ഒരു രണ്ടൊക്കെ പോരേ രണ്ടൊക്കെ പോരേ സാർ ഉം പിന്നെ ജ്യൂസ് ഐറ്റം

ഐസ്ക്രീം ഉണ്ടല്ലേ ഐസ്ക്രീം ഒരു ഫാമിലി പാക്ക് ഐസ്ക്രീം ഒരു ഫാമിലി പാക്ക് എടുത്താട്ടെ ആ പിന്നെ ആ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഉണ്ടോ ആ അത് ആപ്പിൾ ജ്യൂസ് ഒരഞ്ചെണ്ണം ഇരിക്കട്ടെ

അപ്പോൾ പിന്നെ മസാലദോശ ഇപ്പോൾ എത്ര മണി ആവും കിട്ടാൻ നിങ്ങൾ ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് വേണ്ടേ ആ അപ്പോൾ ഇല്ലയില്ല ലേറ്റ് ആകില്ല ലേറ്റ് ആക്കിയാൽ പിന്നെ അത് ഇതാവും തണുത്തു പോകുന്നുണ്ടല്ലേ ആ ആ അപ്പോൾ ഞാൻ ഞാനൊരു അഞ്ചേമുക്കാൽ ആറുമണി ആവുമ്പോൾ വിടാം നിങ്ങൾ ആറുമണി ആകുമ്പോഴത്തേക്ക് ആറുമണി ആകുമ്പത്തേക്ക് റെഡി ആക്കി വെച്ചോ കേട്ടോ ആ ആ എല്ലാം റെഡി ആക്കി വെച്ചോ ഓക്കെ ആ ആ ശരി അപ്പോൾ ഞാൻ ചിലപ്പോൾ വരാൻ ബുദ്ധിമുട്ട് ആണെങ്കിൽ ഞാൻ ആളെ വിടാം കേട്ടോ അപ്പോൾ ആ ആ ആ ഞാൻ ഇതാക്കാം ആളെ വിടാം ആ ഓക്കേ ഓക്കേ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ ഓക്കേ